ഞാനൊരു ഒരു സദ്യാ സെറ്റും ഒരു മസാല ദോശ സെറ്റും എടുത്തോ എനിക്ക് സദ്യ എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകം ശ്രദ്ധിക്കണേ അതായത് എനിക്ക് മൂന്ന് പപ്പടം എങ്കിലും മിനിമം വേണം അച്ചാറ് നാരങ്ങാ അച്ചാറ് തന്നെ ആയിരിക്കണം വേറൊരു അച്ചാറും വേണ്ട എനിക്ക് സാമ്പാർ ഒഴിക്കേണ്ടത് അത് ചോറിൻ്റെ നാടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ നടുക്കൊഴിക്കണം തൈര് ഒരു ഗ്ലാസിൽ തന്നെ വേണം തൈര് അതിൽ മിക്സ് ചെയ്യരുത് മീൻ കറിയും അത്യാവശ്യമായിട്ട് വേണം മീൻ വറുത്തത് വറുത്തതും വേണം മീൻ വറുത്തത് അയില ആണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് സബോള ഇങ്ങനെ കുനു കുനാ എന്ന് അരിഞ്ഞിടണം വലുപ്പത്തിലല്ല കുനു കുനാ എന്ന് അരിഞ്ഞിടണം എന്നിട്ട് മൊട്ട വറുത്തതിൽ മുളകുപൊടി ഇടരുത് കുരുമുളകുപൊടി മാത്രമേ ഇടാവൊള്ളൂ ആവശ്യത്തിന് മാത്രം ഉപ്പിടുക പിന്നെ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ മസാല നല്ല എരിവ് കൂടിയ മസാല ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ദോശയുടെ എല്ലാ ഭാഗങ്ങളും നല്ല മൊരിഞ്ഞ് വേണം ഇരിക്കാൻ പിന്നെ ദോശയിൽ ദോശയുടെ മുകളിലൂടെ ചട്ട്ണി ഒരിക്കലും ഒഴിക്കാൻ പാടില്ല ചട്ട്ണി എപ്പോഴും ഒരു ചെറിയ പാത്രത്തിൽ സൈഡിൽ തന്നെ ആയിരിക്കണം എനിക്ക് തേങ്ങാ ചമ്മന്തിയും വേണം തക്കാളി ചമ്മന്തിയും വേണം സാമ്പാർ ചൂടോടെ തന്നെ ആയിരിക്കണം എനിക്ക് കിട്ടേണ്ടത് അയ്യോ പിന്നെ സദ്യയിൽ എന്നാൽ ചൊറിൻ്റെ അളവ് വളരെ കുറച്ചേ ആകാവുള്ളൂ എനിക്ക് കറി ഞാൻ കറി വളരെ അധികം കഴിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് കറികളിൽ ഒരു ഒരു ദയയും കാണിക്കേണ്ട കറികൾ ആവശ്യത്തിലധികം വിളമ്പിക്കോളൂ ഞാൻ എല്ലാം കഴിച്ചോളാം